പണ്ടൊക്കെ ട്രക്കിങ്ങിന് പോകുമ്പോള് വളരെ നീറ്റായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും നമ്മള് കാണുന്നെ ഇപ്പോള് പാറ ഇടുക്കുകളാവട്ടെ ഇല്ലെന്നുണ്ടെങ്കില് കുന്നിൻ ചെരിവുകളിലാവട്ടെ ഇടവഴികളിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും വളരേ അധികം നീറ്റായിട്ടുള്ള ആ ഒരു വൃത്തി ഭയങ്കരമായിട്ട് വൃത്തി ആയിരിക്കും കാരണം കാട്ടിനകത്ത് ചവറിടാനാരും വരുന്നില്ലല്ലൊ പക്ഷെ ഈ ട്രക്കിങ്ങിന് പോകുന്നവരുടെ എണ്ണം കൂ കൂടിക്കൂടി വന്നതോടു കൂടെ പല വിധമായിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വ്യക്തമായിട്ട് ഒരുപാട് വളരേയധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടിയിട്ടുണ്ട് അത് പ്രകൃതിക്കും ദോഷമായിട്ടുള്ള കാര്യമാണ് അതീ ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാര് തന്നെയാണ് അവിടെയിടുന്നത് മാലിന്യങ്ങൾ അവര് കൊണ്ടുവന്ന അവരെന്താണോ കൊണ്ടുവന് ചിലപ്പോള് ആഹാരം കഴിക്കാൻ കൊണ്ടു വന്നായിരിക്കും ചിലപ്പോള് വെള്ളം കുടിക്കാൻ കൊണ്ടു വരുന്ന ബോട്ടിൽസായിരിക്കും എന്ത് കൊണ്ടു വന്നാലും അവര് കൊണ്ടുവന്നവരു തന്നെ തിരിച്ച് ബാഗിലാക്കി അത് കൊണ്ടുപോയിക്കഴിഞ്ഞഴിഞ്ഞാല് പ്രശ്നം വരത്തില്ല ഇത് അവര് വെള്ളം കുടിച്ചിട്ടങ്ങ് അവിടെ ഇട്ടിരിക്കും ഈ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ അവിടെയുള്ള എക്കോസിസ്റ്റത്തിനെ തന്നെ ആകെ മാറ്റിക്കളയുന്നൊരു കാര്യമാണ് കാരണം പ്ലാസ്റ്റിക് മണ്ണിനോടലിഞ്ഞ് ചേരാൻ വർഷങ്ങള് വേണം എന്നാ പറയുന്നെ വര്ഷങ്ങളെത്രെയോ ബില്യൺ വർഷം വേണോന്നൊക്കെയാ പറയുന്നെ ഒരു പ്ലാസ്റ്റിക് കപ്പ് ഒരു പ്ലാസ്റ്റിക് കവര് അലിഞ്ഞു ചേരാനായിട്ട് അപ്പോള് അവിടെയാരും അടിച്ചുവാരി വൃത്തിയാക്കി ഇടാനൊന്നും ആരുമില്ല നമ്മള് പോകുന്ന നമ്മള് തന്നെ നമ്മള് മനുഷ്യര് തന്നെ ചിന്തിക്കണം ട്രക്കിങ്ങിന് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ വഴിയിലൊന്നും വലിച്ചെറിയാൻ പാടില്ല അത് പരിസ്ഥിതിക്ക് കേടായിട്ടുള്ള കാര്യമാണ് അവിടത്തെ മൃഗങ്ങൾക്ക് കേടായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മളീ പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെറിയുമ്പോള് അവർക്കറിയില്ല മിണ്ടാപ്രാണികളാണ് അവരത് എന്തോ കഴിക്കാനുള്ള സാധനമെന്നൊക്കെ പറഞ്ഞിട്ട് അവരതെടുത്ത് കഴിക്കും അപ്പോള് അതവർക്ക് പ്രശ്നങ്ങളുണ്ടാക്കുകയും അവ ചത്തു പോകാനും ഒക്കെ ഇടവരും അപ്പോള് അതുകൊണ്ട് കഴിവതും വൃത്തിയായിത്തന്നെ സൂക്ഷിക്കാം നമ്മുടെ മാലിന്യം നമ്മൾ തന്നെ വെച്ചിരിക്കുക ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് എന്താണോ ഇപ്പോഴൊരു മിട്ടായി കവറായിരിക്കാം എന്തായാലും അത് താഴയിടാതെ വലിച്ചെറിയാതെ കയ്യില് വെച്ചിരിക്കുക നമുക്ക് പ്രോപ്പറയിട്ടത് സംസ്കരിക്കാൻ മാലിന്യം സംസ്കരിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അതങ്ങനെ സംസ്കരിക്കുക അല്ലാതെ ഈ വലിച്ചെറിയുന്ന സ്വഭാവം പാടെ നിർത്തുക